സമൂഹ മാധ്യമ മാധ്യമ മേ മേഖലയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെതന്നെ നമ്മുടെ വാട്സ്പ്പ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നമ്മുടെ വിനോദസഞ്ചാരികളായിട്ടുള്ള ആൾക്കാർ അവർ പോയിട്ട് കാണുന്ന കാര്യങ്ങൾ അവിടെ നിന്നു കിട്ടുന്ന അനുഭവങ്ങൾ അവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മറ്റു ജനങ്ങൾക്കു കാണുന്ന രീതിയിലേക്ക് അതിനെ റെക്കോർഡ് ചെയ്ത് ഈ മാധ്യമങ്ങളിലൂടെ കാണിക്കുമ്പോൾ ഇതിൽ കാണാത്ത അല്ലെന്നുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർക്കും അവിടെ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നേരിൽ കാണാനും ആ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയെ ഇപ്പോൾ സാധാരണ ജനങ്ങൾ കണ്ടു വരുന്നത് ഈ ഇങ്ങനെ കണ്ട് വരുന്ന നല്ല കാര്യങ്ങളും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങലിലെല്ലാം കണ്ടു വരുമ്പോൾ ആ അവിടുത്തെ സാദാ അവിടെയുള്ള ആൾക്കാർക്ക് ഈ പുറത്തു നിന്നു വരുന്ന ആൾക്കാരിൽ നിന്ന് പുറത്തു നിന്നു വരുന്ന ആൾക്കാർ മൂലം കിട്ടുന്ന കച്ചവടങ്ങൾ അതേപോലെ തന്നെ അവിടുത്തെ ഗ്രാമീണ മുള്ള ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും ആ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആഥിതേയരായിട്ടുള്ള ആൾക്കാർക്കവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പിന്നെ അവർക്കു പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അതിഥികൾക്കും ആതിഥേയർക്കും ഒരേ പോലെ തന്നെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും ഗവൺമെൻറ്റിനു വരുമാനം വർദ്ധിക്കപ്പെടും അതുപോലെ തന്നെ ഈ അറിയപ്പെടാതെ അല്ലെങ്കിൽ മറ്റു പിന്നെ പ്രമോഷനുകൾ കിട്ടാത്ത പുതിയ പുതിയ സ്ഥലങ്ങൾ ജനങ്ങളിലേയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയകൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ അതു നല്ല രീതിയിൽ വേണം ഇതിനെയൊക്കെ ഉപയോഗിക്കാനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവർ പ്രചരിപ്പിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടാകാൻ പാടില്ല നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളെ കുറിച്ച് അറിയുവാനും അതിഥികൾക്കു നല്ല ഒരു ആതിഥേയത്വം കിട്ടുന്നതിൻറ്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കു വേണ്ടി ആതിഥേയരായിട്ടുള്ള ആൾക്കാർ അവിടെ നല്ല പ്രവേശനങ്ങൾ കൊടുക്കപ്പെടുകയും ഒപ്പം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മായം ചേരാത്ത രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാനും അങ്ങനെ ആതിഥേയരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള മെച്ചം ഉണ്ടാകാനും സാദ്ധ്യതയുണ്ടാകും